ഹലോ ആ മാഡം നമസ്കാരം മേഡത്തിന് എന്ത് ലോൺ ആണ് ആവശ്യമുള്ളത് ഞാൻ ലോൺ ലോൺ പേഴ്സണൽ ലോൺ ആണോ ഹൗസിങ്ങ് ലോണാണ് ഹൗസിങ്ങ് ലോൺ ആണ് അതെ അല്ലെ അപ്പോൾ എത്ര എമൗണ്ട് വരെയാണ് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ആയിക്കോട്ടെ ട്വന്റി ഫൈവ് ലാക്സ് അല്ലേ അതെ അല്ലേ അപ്പോൾ എത്ര

വർക്ക് ചെയ്യുകയാണ് അല്ലേ ഓക്കേ അപ്പോൾ സാലറി സ്ലിപ്പ് ഉണ്ടല്ലോ സാലറി സ്ലിപ്പ് കാണുമല്ലോ അല്ലേ പിന്നെ വേറെ എന്തൊക്കെ ഡോക്യുമെൻ്റസ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്ത് ലാൻഡ് സ്വന്തമായിട്ടുണ്ടോ സ്വന്തമായിട്ട് വീട് പട്ടയമുള്ള ഭൂമിയുണ്ടോ അ ഉണ്ട് പട്ടയം അടച്ച കരം അടച്ച രസീതും ഉണ്ടല്ലേ അതെയോ അത് മൊത്തം പട്ടയമുള്ള സ്ഥലമാണോ ആ അപ്പം അതാണെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെയാണെങ്കിൽ തന്നെ ലാൻഡ് തന്നെ നമുക്കൊരു ഡയറക്റ്റ് ഡോക്യുമെൻ്റ ആയിട്ട് വെക്കാം പിന്നെ സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലാൻഡ് ലാൻഡും നമുക്ക് നോക്കട്ടെ ലാൻഡ് നമുക്ക് അതിൻ്റെ വാല്യൂ നടത്തേണ്ടിവരും അതിൻ്റ് എവിടെയാണ് സ്ഥലം എവിടെയാണ് അത് സ്ഥലം കട്ടപ്പനയാണ് അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു വാലിഡേഷൻ എടുക്കേണ്ടിവരും കാരണം നമുക്ക് അതിൻ്റെ വില ഒരു നമുക്ക് വില നടപ്പ് വില ഉണ്ടല്ലോ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഈട് സ്ഥലത്തിൻ്റെ ഒരു വാല്യുവേഷൻ വേണം പിന്നെ ഒരു സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാഡത്തിന് അത് ട്വൻറ്റി ഫൈവ് ലാക്സ് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ അതിന് കുറച്ച് അനുബന്ധരേഖകൾ കൂടെ വേണ്ടിവരും കാരണമെന്നു വച്ചാൽ നമുക്ക് വില്ലേജിൽ നിന്നുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് വില്ലേജ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ബാധ്യത സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാമോ നോൺ അറ്റാച്ച്മെൻ്റ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉള്ള ലൊക്കേഷൻ സ്കെച്ച് അങ്ങനെയുള്ള കുറെ ഡോക്യുമെൻ്റസ് നമുക്ക് വേണ്ടി വരും

സമയം നമുക്ക് അതായത് നമുക്ക് ഡോക്യുമെൻ്റസ് തരുന്ന അനുസരിച്ച് ഡോക്യുമെൻ്റസ് തന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാക്സിമം ഡോക്യുമെൻ്റസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറേ സമയമെടുക്കും ഒരു പതിനഞ്ച് ഒരു

ആ തരാം തരാം അയച്ചു തരാം അങ്ങനെ ഇവിടെ രേഖകൾ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്ത് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഡോക്യുമെൻസ് എല്ലാം വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ മ്മ് അപ്പോൾ നോക്കാം അതിൻ്റെ വാലിഡേഷൻ നടത്തണം സ്ഥലത്തിൻ്റെ വാലിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ വിലയുണ്ടെങ്കിൽ എടുക്കാം വില വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു മാർക്കറ്റ് വിലയനുസരിച്ച് നമുക്കിതിൻ്റെ ഒരു ഒരു നമ്മൾ കൂടുതൽ നമ്മൾ എപ്പോൾ ലോൺ എടുക്കുന്നു അതിനേക്കാൾ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടുതൽ നമുക്കൊരു ഈടായിട്ട് വേണം സ്ഥലം സ്ഥലം ഈടായിട്ട് വേണം അപ്പോൾ അത് നോക്കി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു നമുക്ക് പിന്നെ അപ്പോൾ എത്ര നാളത്തെ കാലയളവ് എത്ര നാളത്തെ ആണ് ഉദ്ദേശിക്കുന്നത് അടച്ച് തീർക്കാൻ പറ്റുന്നത് ഇ എം ഐ കണക്ക് കൂട്ടി എടുക്കാൻ വേണ്ടിയായിരുന്നേ രണ്ട് വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമോ

അതെ അല്ലെ അതെ അല്ലെ ഹസ്ബൻഡ് എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതെ അല്ലേ ഗവണ്മെൻ്റെ സ്റ്റാഫ് ജോബ് വല്ലതുമാണോ അതെ ആ ഓക്കെ ഓക്കേ ഓക്കേ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഡോക്യുമെൻ്റസ് ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാരണം പെട്ടെന്ന് മാഡത്തിൻ്റെ ഒരു യെസ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആണെന്ന് തോന്നുന്നുണ്ട് കാരണമെന്നുവച്ചാൽ ജോലിയുണ്ട് ഹസ്ബൻഡ് ജോലി ഉണ്ട് പിന്നെ ലാൻഡ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എമൗണ്ട് കൂടുതൽ വേണേൽ തരാൻ പറ്റുമായിരിക്കും എമൗണ്ട് നോക്കികഴിഞ്ഞാൽ രണ്ടു വർഷം ആ ഉണ്ട് ഉണ്ട് കുഴപ്പമില്ല ഡോക്യൂമെൻ്റസ് ആ നമുക്ക് പേപ്പർസ് കറക്റ്റ് തന്ന് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ ഇ എം ഐ അത് എമൗണ്ട് അനുസരിച്ച് ഇ എം ഐ അവർ തരും രണ്ട് വർഷമാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവു വരും ഏകദേശം ഒരു എട്ട് ഒമ്പത് ശതമാനത്തോളം ഇൻട്രസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടുമൂന്ന് കമ്പനികളിൽ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുതരാം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കുറച്ച് പലിശ കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി പലിശ കൂടുതൽ വരും അതുകൊണ്ട് നമുക്ക് അതെയല്ലേ ആ അപ്പോൾ ഏറ്റവും മെച്ചമുള്ള ഓഫർ ഏറ്റവും മെച്ചമുള്ള ഓഫർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കേട്ടോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ആ ഡീറ്റെയിൽസ് എന്തൊക്കെ വേണം എന്തൊക്കെ വേണം എന്നുള്ളത് ഞാനൊന്ന് വാട്സപ്പ് ചെയ്തുതരാം എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഓക്കേ ഓക്കേ ആഹ് അപ്പോൾ വേറെ എന്തെങ്കിലും വിശേഷം ഇല്ലല്ലോ എന്തെങ്കിലുണ്ടെങ്കിൽ വിളിക്കുക എൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഇതു തന്നെയാണല്ലോ അല്ലെ ഇതിൽ അയച്ചു തന്നേക്കാം കേട്ടോ എന്തൊക്കെ ഡോക്യൂമെൻ്റസ് വേണം അത് ആഹ് എത്രയൊക്കെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ അത് പെട്ടെന്ന് നമുക്ക് തിരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുവോ എവിടെയൊക്കെ കുറേ നമ്മൾ എന്നുവച്ചാൽ ആദ്യമേ നേരിട്ട് തന്നെ അപേക്ഷ കൊടുത്താൽ കിട്ടുന്ന ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന കുറെ ഡോക്യൂമെൻ്റസ് ഉണ്ടേ പഞ്ചായത്ത് വില്ലെജ് ഓൺലൈൻ ആയിട്ട് നോക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ ആ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ആണേൽ കോണ്ടാക്ട് ചെയ്താൽ മാഡം അതിൻ്റെ ലിസ്റ്റ് അയച്ചു തരുമ്പോ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതു പെട്ടെന്ന് ഔട്ട്പുട്ട് തരുന്നതായിരിക്കും ഏഹ് ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ എന്തെങ്കിലും ഉണ്ടേൽ വിളിക്കുക കേട്ടോ